ആ ഇവിടെ ഓണത്തിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞാൻ വന്നതായിരുന്നു എങ്ങനെ കേട്ടില്ല ആ ഏതൊക്കെത്തരം ഡ്രെസ്സാണ് നല്ലത് ഉണ്ടാവുക പാൻറ് ഷർട്ട് കുട്ടികൾക്കെല്ലാം വേണ്ടി എടുക്കാൻ വേണ്ടീട്ടായിരുന്നു മുണ്ടോ ആ ഓക്കേ ഷർട്ട് കുർത്ത ആണോ നല്ലത് അതോ ഷർട്ടാണോ കുറച്ചുകൂടെ നല്ലതായിട്ട് വരുക കുട്ടികൾക്ക് അത് കുറച്ച് ഡിസൈൻ ഓക്കെ വരുന്ന ടൈപ്പ് ആയിരുന്നു കുട്ടികൾക്കു താല്പര്യം ആ കാണുന്ന ഷർട്ട് ഇങ്ങ് എടുക്കുമോ ആ കാണുന്ന ഡ്രസ്സ് ഒന്ന് എടുക്കുമോ താഴെ ഉള്ള രണ്ടാമത്തെ റോയിലുള്ള ഡ്രസ്സ് ഒന്ന് എടുക്കാൻ പറ്റുമോ വല്യാൾക്കുള്ളതോ ആ ഓക്കേ ഓക്കേ ആ അപ്പോൾ അല്ല കുട്ടികൾക്ക് പറ്റുന്ന ഒന്നെടുക്ക് നോക്കട്ടെ

ഓക്കേ ആ ഓക്കേ ആ ഒട്ടിക്കുന്നതോ ആ ഓക്കേ ഒരു നാല് വയസുള്ള കുട്ടിയും പിന്നെ ഒരു രണ്ട് വയസുള്ള കുട്ടിയാണ് ഉള്ളത് അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് എടുക്കുന്നതുകൊണ്ട് ആ ഒരേപോലത്തെ പിന്നെ എനിക്കും വൈഫിനും ഒരേപോലത്തെ ഡ്രസ്സ് വേണമായിരുന്നു ആ അപ്പം അത് ഒന്ന് എടുത്ത് ഒന്ന് എടുത്ത് കണിക്കുമോ അത് ആ അതെന്നെ അതൊന്ന് നോക്കട്ടെ ആ ഇത് കുഴപ്പമില്ല ഇതിന്റെ എല്ലാ അതായത് വല്യവർക്കും ചെറിയ എന്താ പറയുക കുട്ടികൾക്കും പറ്റിയത് ഉണ്ടോ എന്നാൽ ഇത് ഒന്ന് പാക്ക് ചെയ്യാൻ പറ്റുമോ എത്രയാ റേറ്റ് അതിന് എത്രയാ വരുന്നത് റേറ്റ് എത്രയാ വരുന്നത് അറുന്നൂറ് ആ ആ ഓണത്തിന്റെ ഓഫർ ആയിരിക്കുമല്ലേ ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരാൾക്ക് വൈഫിന് ആ വൈഫിനു സാരീ സാരിയല്ലേ ഉണ്ടാവുക ആ ചുരിദാർ മതി ചുരിദാർ മതി ആ ഓക്കേ ഓക്കേ എന്നാൽ അതൊന്ന് പാക്ക് ചെയ്തേക്ക് കേട്ടോ ഓക്കേ ഓക്കേ